ഞാൻ സെലക്റ്റ് ചെയ്ത ഫോൺന്ന് പറയുന്നത് ഒപ്പോ എ ഫൈവ് സെവൻ്റെ ഒരു ഫോണാണ് ആ ഫോൺന്ന് പറയുന്നത് അവർ പറഞ്ഞ പോലെയാണ് ഞാൻ എടുക്കുന്ന ടൈമിൽ അവർ എൻ്റെടുത്ത് പറഞ്ഞത് നല്ല സ്റ്റോറേജ് കപ്പാസിറ്റിയും ബാക്റ്ററിയും എല്ലാം നല്ല പോലുള്ള ഫോണാണ് പെട്ടന്ന് ഹീറ്റവില്ല ഞാനത്യാവശ്യം ഒരു ഗെയിമിങ്ങ് ഒക്കെ കളിക്കുന്ന ഒരാളാണ് അപ്പം ഗെയിമ് പബ്ജി അങ്ങനത്തെ എല്ലാ ഗെയിമും കളിക്കുമ്പോൾ ഫോൺ പെട്ടന്ന് ഹീറ്റാകുന്ന കൊണ്ടാണ് ഞാൻ ഇപ്പം ഫോൺ മാറ്റി പുതിയ ഫോൺ എടുക്കാൻ തീരുമാനിച്ചത് ഇപ്പം ഈ ഫോണെടുത്തപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ ഹീറ്റകുവോന്നൂല്ല എത്ര നേരം വേണേലും യൂസ് ചെയ്യാം പിന്നെ ചാർജ് ഒരുപാട് നേരം നിൽക്കും സ്റ്റോറേജ് ഒക്കെ അത്യാവശ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എടുത്തത് കണ്ടപ്പോൾ എനിക്കു ഇഷ്ട്ടപ്പെട്ടു ബ്ലാക്ക് വൈറ്റ് രണ്ട് കോമ്പിനേഷനായിരുന്നു അതിൽ ഉണ്ടായിരുന്നത് അതിൽ ഞാൻ ബ്ലാക്ക് എടുക്കുവാണ് ചെയ്തത് ഞാൻ നോക്കുമ്പോൾ ഈ ഫോണിന് ഇവർ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല പോലെ സ്റ്റോറേജ് സ്പേസോക്കെ ഉണ്ട് അതുപോല്ലന്നെ ഇവർ പറഞ്ഞ പോലെ ഒരുപാട് നേരം ചാർജ് ഒക്കെ നിൽക്കുന്നുണ്ട് ചാർജ് ഒന്നും സീനൊന്നും ഇല്ല കുറെ നേരം തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഞാനത് വാങ്ങിയിട്ട് മൂന്ന് നാല് വർഷമായി ഇപ്പോഴും അതിൽ ചാർജ് അതുപോലെ നല്ല പോലെ നിൽക്കുന്നുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അത് മാത്രമല്ല നല്ല ഫോട്ടോ ക്ളാരിറ്റീം എല്ലാം ഉണ്ട് ക്യാമറയൊക്കെ നല്ല പെർഫെക്റ്റ് ആണ് ക്ലാരിറ്റി ഒള്ള ഫോണാണ് അതുപോല്ലന്നെ പെട്ടന്ന് ഞാൻ ഒരുപാട് ഗെയിം കളിക്കുന്ന ആളായത് കൊണ്ട് ഏറ്റവും വലിയ ഇഷ്യൂന്ന് പറയുന്നത് ഫോൺ ഹീറ്റാകുന്നതാണ് ഞാനൊരു ഗെയിമാറാണ് അപ്പം ഫോൺ ഹീറ്റാവൂന്ന് പറയുന്നത് ഓക്കെ ആയിരിക്കില്ലല്ലോ അപ്പയീ ഫോണെന്ന് പറയുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഹീറ്റാകുന്ന കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല പോലെ വർക്ക് ആകുന്നുണ്ട് എത്ര നേരം വേണേലും കണ്ടിന്യൂസായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോല്ലന്നെ ഇതിന് നമുക്ക് പല പല ഒപ്ഷൻസ് ഉണ്ട് നമ്മുടെ കണ്ണിന് ഐ പ്രൊട്ടക്ഷൻ ഒക്കെയുള്ള ഓപ്ഷൻസും പിന്നെ ബ്രൈറ്റ്നസ്സിൽ ഒരു ഓട്ടോമാറ്റിക്കൊക്കെ ഇടാനും അങ്ങനെ ഹൈട്ടക്കായിട്ട് ഓരോരൊ ഓരോരൊ സാധനങ്ങളിതിൽ ന്യൂ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് അതുപോല്ലന്നെ എന്താ പറയാ അധികം നമുക്കിപ്പോൾ മറ്റെല്ലാവർക്കും ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈസും എല്ലാം തന്നെയാണിതിനുള്ളത് ഇതിന് എനിക്ക് നെഗ്ഗ് എന്ന് പറയാൻ ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല ഞാനീ ഫോൺ മൂന്ന് വർഷമായിട്ട് സിൻസ് യൂസ് ചെയ്യുന്ന ഒരാളാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എടുത്ത ഒരു ബെസ്റ്റ് ഫോൺ തന്നെയാണ് ഇത് ഇപ്പോൾ ഈ മൂന്ന് വർഷമായിട്ടും ഇതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ കയ്യിന്ന് ഒരു മൂന്ന് നാല് വട്ടം ഈ ഫോൺ നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ പോലും ഈ ഫോണിന് ഇപ്പോഴും ഒരു പ്രശ്നോന്നുമില്ല നല്ല പോലെ യൂസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്